എൻ്റെ ഹസ്ബൻ്റ് ദുബായിൽ ഉണ്ടായതായിരുന്നു അപ്പോൾ ഈ കോറോണയൊക്കെ വന്ന സമയത്ത് വീട്ടിൽ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴ് എന്നും ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നാടൻ അരി മുറുക്കും മിച്ചറും ആണ് എൻ്റെ മക്കൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനെപ്പോഴും ഈ മിച്ചറും ഇതൊക്കെ ഉണ്ടാക്കിട്ടുള്ള ഫോട്ടോസ് ഭർത്താവിന് അയച്ചുകൊടുക്കുമ്പോൾ അവരെപ്പോഴും പറയാറ് ഓ കൊറോണയല്ലേ അതൊക്കെ മാറിയിട്ട് നാട്ടിൽ വന്നിട്ട് നമക്ക് ഇതിൻ്റെ ബിസിനസ് തുടങ്ങാം അപ്പൊ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് രുചിയുണ്ട് രുചി മൂപ്പരറിയുന്നില്ലലോ മൂപ്പര് ഈ ഫോട്ടോല് നല്ല പെർഫെക്ഷൻ ആയിട്ട് കാണുന്നുണ്ട് പെർഫെക്റ്റ് സാധനമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ നമ്മൾ ഫോൺ കോളിൽ എപ്പോഴുള്ള ചർച്ചയിൽ നടക്കുന്നത് ഈ ബിസിനസ്സെന്നയായിരുന്നു മുറുക്കിന്റേം മിച്ചറിന്റേം ഇത്രേം സാധനം കൊണ്ട് ഇത്രേം ഉണ്ടാക്കാം അതിൽ ഇത്ര ലാഭം കിട്ടും കടകൾ പിടിക്കണം കടകളിലൊക്കെ കൊണ്ടു കൊടുക്കണം അങ്ങനെ ഇങ്ങനെന്നൊക്കെത്തന്നെയായിരുന്നു ഞാൻ വെറുമൊരു തമാശക്ക് എൻ്റെ മക്കൾക്ക് വീട്ടീന്ന് എന്താ പറയണ്ടേ വേറെ വിഷാംശം ഒന്നും ചെല്ലാണ്ട് പൊട്ട സാനങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ എല്ലാം നമ്മുടെ കൺമുന്നിലല്ലേ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന സാധനം എന്ന് വിചാരിച്ചിട്ട് മാത്രം ഉണ്ടാക്കി തുടങ്ങിയതായിരുന്നു പക്ഷേ അത്രയും രുചിയും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായി ബന്ധുക്കളൊക്കെ വന്നപ്പോൾ കൊടുത്തപ്പോഴും അവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിന് അപ്പോൾ ബന്ധുക്കളും പറഞ്ഞു ഓ നിൻ്റെ ഭർത്താവ് നാട്ടിൽ വന്നുകഴിഞ്ഞ നിനക്കിങ്ങനെ ഒരിത് മതിയല്ലോ ഇനിയിപ്പോൾ ഗൾഫിൽത്തന്നെ നിന്ന് കഷ്ടപ്പെടൊന്നും വേണ്ടല്ലോ ബിസിനസ്സായിട്ട് കൊണ്ടുപോവാന്നൊക്കെ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോഴും ഞാൻ മക്കൾക്കൊക്കെ മിച്ചറും മുറുക്കും ഒക്കെ വീട്ടിന്നന്നെ ഉണ്ടാക്കിക്കൊടുക്കുന്നെ പുറത്തുന്നൊന്നും വാങ്ങിക്കാറില്ല ഏറ്റവും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് അരിമുറുക്കോക്കെ പുറത്തുന്നു വാങ്ങിക്കുമ്പോൾ നല്ല വിലയാണ് കടേലൊക്കെ നല്ല വിലയാണ് പക്ഷേങ്കിൽ ഇത് ചെറിയ കുറച്ചായിറ്റംസ് കൊണ്ട് ഒരുപാട് നമുക്കുണ്ടാക്കിട്ട് നല്ല ഡബേലടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കെന്നും ധൈര്യത്തോടെ നമ്മൾ ബിസ്ക്കറ്റ് അതും ഇതും ഒക്കെ കൊടുക്കുന്നതിനു പകരം നല്ല ധൈര്യത്തോടെ നമ്മളുണ്ടാക്കിയ സാധനം ശുദ്ധമായിട്ട് ഉണ്ടാക്കുന്ന സാധനം എന്നുള്ള നിലക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനമാ ണ്